ഹലോ ഞാൻ ഈ ഒലേൻ്റെ ഡിപ്പാർട്ട്മെൻറ് സെയിൽസ് അല്ലേ ആ ഞാൻ ഈ മറ്റേ എസ് വൺ പ്രോ ഇല്ലേ അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് വിളിച്ചതായിരുന്നു ഇ എം ഐയിൻ്റെ ഡീറ്റെയിൽസ് തരണം പിന്നെ അതിൻ്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് വിളിച്ചതാണ് അതെയോ എത്ര അപ്പോൾ ഇ എം ഐയിൻ്റെ കാര്യങ്ങളൊക്കെ അല്ല ഓ സബ്സിഡി ഉണ്ടോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ഉണ്ടാവും പറഞ്ഞു അപ്പോൾ അതുണ്ടോ ഓ പിന്നെ അത് അതിൻ്റെ ബാറ്ററി എത്ര കൊല്ലം കഴിഞ്ഞ് മാറണം അതൊക്കെ നമ്മൾ ഇപ്പം ആദ്യമായിട്ടാണീ ഇലക്ട്രിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതാണ് നിങ്ങൾ ചോദിക്കുന്നത് കേട്ടോ ആ അതെ ഞാൻ ഇപ്പോഴും അതാണ് ഉപയോഗിക്കുക എനിക്ക് പിന്നെ ഡെയിലി കുറേ കളക്ഷൻ ആയിട്ട് കുറേ ഓട്ടം ഒക്കെ ഓടണം അപ്പോൾ മുതലാവുന്നില്ല അതാണ് ആ പിന്നെ അത് ബാറ്ററി കത്തണ സീൻ അങ്ങനെയൊക്കെ കാണാറുണ്ട് അതൊക്കെ എന്താണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ആ പിന്നെ അതിൻ്റെ റേഞ്ച് എത്ര പറഞ്ഞത് ആ ഷോറൂം പ്രൈസ് എത്ര എത്ര കൊല്ലത്തിന് ഇൻഷുറൻസ് എടുക്കണം അതിന് ആ ഓ ആ

സാറിൻ്റെ പേരെന്താണ് എൻ്റെ പേര് അതുൽ ഞാൻ ഗുരുവായൂരിൽ നിന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്പർ തന്നതാണ് മറ്റേ ആ റഫീക്ക് ആ എടക്കരയുള്ളത് ആ അതുതന്നെ മറ്റേ ആഷിക്കിൻ്റെ ഒക്കെ അച്ഛൻ

ആ അല്ല ആ വണ്ടിയിൽ മറ്റേ ഇലക്ട്രിക് സോക്കറ്റിൻ്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ചിട്ട് അതൊക്കെ ഇല്ലേ അവൻ തന്നെ ആ ഓ അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് വണ്ടി ഇഷ്ടമായി സംഭവം വേറെ ആരും ബുക്ക് ചെയ്തത് ആക്റ്റീവേൻ്റെ ടയർ ഒക്കെ ആയിട്ട് പക്ഷേ നല്ലൊരു വണ്ടിയാണ് മനസ്സിലായത് എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും ഉപകാരം ആയിരിക്കും കാരണം ഈ പറഞ്ഞ ഡെയിലി ഓട്ടം ഓടുന്നതുകൊണ്ടേ നമുക്ക് താങ്ങുന്നില്ല കുറേ ഓട്ടം ഓടുന്നതുകൊണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്ന സാലറി പകുതി മുക്കാലും ഈ പറഞ്ഞതുപോലെ വണ്ടീൻ്റെ പെട്രോളിലാണ് പോവുന്നത്

അപ്പോൾ നാളെ വരുന്നുണ്ട് അതിപ്പോൾ എത്രയാണ് ആദ്യം എത്രയാണ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് പറഞ്ഞത് പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്സ് എടുക്കണം ആധാർ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇരുപതിനായിരം രൂപ അല്ലേ പിന്നെ മാസത്തിൽ മൂവായിരം വെച്ചിട്ട് ഓക്കെ സാറേ ഇതിന് ബെൽറ്റിൻ്റെ കാര്യം ഒക്കെ എങ്ങനെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ടോ ബെൽറ്റിലും കാറ്റ് ആ ശരി ശരി അപ്പോൾ നാളെ വരാം ഓക്കെ ഓക്കെ സാർ താങ്ക് യു